സൗമ്യ ടീച്ചറ് സൗമ്യ ടീച്ചറല്ലേ ഞാൻ ഞാൻ അവിടെ ഞാൻ ഇന്നലെ ടു മിനിഞ്ഞാന്ന് ട്യൂഷന് ചേർത്ത അഞ്ജിതേടെ അമ്മയാണ് ആ അന്ന് വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല ഒരു സ്ഥലത്ത് പോവാനുണ്ടായിരുന്നു അത് കൊണ്ടിപ്പോൾ അവളെങ്ങനെയുണ്ട്

മോൾക്ക് മലയാളം ഇത്തിരി ബുദ്ധിമുട്ടാണ് മാമ് സീനെന്തെച്ചാലെ ചില്ലക്ഷരങ്ങളൊന്നും അങ്ങടറിയില്ല അപ്പോൾ വായിക്കാനും കിട്ടൂല പറയും എഴുതുമ്പോൾ അക്ഷരങ്ങളൊന്നും അത്ര വരുന്നില്ല അപ്പോൾ അപ്പമതും

ആ സപ്പോർട്ട് ചെയ്യാം പിന്നെന്തെങ്കിലുമൊക്കെ ആൾക്ക് പേടി കുറവുണ്ട് അപ്പൊയെന്തെങ്കിലൊക്കെ എഴുതി പഠിക്കാനൊക്കെ ഇവിടെ വന്നിട്ട് എഴുതി കൊണ്ടരാൻ പറയണോട്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് അവൾ വായിക്കൂല്ല ഇപ്പം എഴുതാൻ പറയുവാണെങ്കിൽ ടീച്ചറെ പേടി ഉള്ളോണ്ട് എഴുതി കൊണ്ടന്നോളും

ആ ഫസ്റ്റ് ഡേ കുഴപ്പമുണ്ടോ രണ്ട് ദിവസം കഴിയുമ്പോഴ്ത്തേന് ചിലപ്പം ടീച്ചറ് നോക്കില്ലാന്ന് കണ്ടേണ്ടങ്കി ആൾ മടി കാണിക്കും പിന്നെ എഴുതൂല പേടിയുണ്ടെങ്കിൽ ആൾ ഒരു തല്ലൊക്കെ ഇടക്ക് വെച്ച് കൊടുത്തോ കുഴപ്പമില്ല ഇപ്പോൾ പേടിയൊന്നും കാണിക്കില്ലല്ലോ ആ ആ ആ ആ

ആ ഓക്കെ പിന്നെ മാത്സില്ലേ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ആൾക്ക് തീ ലാസ്റ്റ് എയിറ്റി നയനൊക്കെ വരുമ്പോൾ അവക്കറിയാൻ പാടില്ല

ആ ഓക്കെ പിന്നെ ടൈമ് വൈകുന്നേരം അഞ്ചര തന്നെയായിരിക്കുമോ ആ ഈ നമ്പർലേക്കിട്ടാൽ മതിയേ ആയിത് വാട്സപ്പ് നമ്പറാണ് ഇതിലേക്ക് ചെയ്താൽ മതി ഫീസെങ്ങനെ ഫീസെങ്ങനെയാണ് ടീച്ചറെ മന്ത്ലി എണ്ണൂറ് വരുമല്ലേ എന്നാൽ ഓക്കെ പിന്നെ ഇംഗ്ലീഷിൻ്റെയും കൂടെയുണ്ട് ഇംഗ്ലീഷിലവൾക്കെ ഈ പ്രെനൗൺസ് ചെയ്ത് വേർഡ്സുകൾ എഴുതാനായിട്ടൊന്ന് പ്രാക്ടീസ് തുടങ്ങണം മറ്റവൾ ബൈ ഹാർട്ട് പഠിച്ച് കഴിയുമ്പോൾ ഇന്നെഴുതും പിന്നെ നാളെ പിന്നെ എഴുതാൻ അവൾക്ക് പറ്റില്ല ആ ആ ഒക്കെയെന്നാൽ ഞാനിടയ്ക്ക് വിളിച്ചോളാം എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോട്ടോ ആ ആ ഓക്കെയെന്നാൽ താങ്ക്സ്